നമ്മുടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഒത്തിരി ജനപ്രീയമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട് അതിപ്പം നമുക്ക് എല്ലാവർക്കും മറ്റു ജില്ലക്കാരെ ആകർഷിക്കുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങൾ അതിലൊരു വെള്ളച്ചാട്ടമാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം നമ്മുടെ പിന്നെ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഒത്തിരി ആൾക്കാർ ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന നിത്യ സന്ദർശകരായ ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നത് പിന്നെ കൃഷ്ണമേനോൻ മ്യൂസിയമുണ്ട് പിന്നെ ലോകനാർക്കാവ് ക്ഷേത്രം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ലോകനാർക്കാവ് ക്ഷേത്രം ദിവസവും ദിനംപ്രതി ഒത്തിരിയൊത്തിരി വിശ്വാസികൾ പിന്നെ തീർത്ഥാടനം ആയിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലം അതേപ്പോലെ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് ബീച്ചുണ്ട് പിന്നെ കാപ്പാട് ബീച്ച് ഉണ്ട് അപ്പം ഇതൊക്കെ പിന്നെ കാണാനൊക്കെയായിട്ട് മറ്റു ജില്ലകളിൽ നിന്നും വിദേശത്തു നിന്നും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് എന്നതാണ് സത്യം